ഞങ്ങളുടെ ഗ്രാമത്തിലെ കാർഷിക വ്യവസായത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കർഷകർക്ക് നല്ല രീതിയിൽ നല്ല വളങ്ങൾ കൊടുക്കുക നല്ല വിത്തുകൾ കൊടുക്കുക മണ്ണിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുക നല്ല ജലസേചനരീതി ഏർപ്പാടാക്കുക കൃഷി കർഷകർക്ക് ആധുനിക സജീകരണങ്ങളോട് കൂടിയ മെഷീനുകൾ ഏർപ്പാട് ചെയ്യുക അങ്ങനെയെല്ലാം ചെയ്താൽ കാർഷികരംഗത്ത് നല്ല വരും ഉന്നതിയുണ്ടാകും കാർഷികരംഗം നന്നായി പുഷ്ടിപ്പെടും കർഷകരെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തുകൊടുക്കുക കർഷകരുടെ ഉല്പാദിപ്പിക്കപ്പെടുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും അവരുടെ കൃഷിസ്ഥലത്തു തന്നെ പോയി അവിടെ നിന്ന് വാങ്ങിച്ചു കർഷകനിൽ നിന്ന് നേരിട്ട് വാങ്ങിച്ചു അവർക്ക് നല്ല വില കൊടുക്കുകയാണെങ്കിൽ കാർഷിക വ്യവസായം വളരെയധികം മെച്ചപ്പെടും മാത്രമല്ല കാർഷികരംഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ പുറം രാജ്യങ്ങളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം കയറ്റി അയക്കുകയാണെങ്കിൽ കർഷകർക്ക് ധാരാളം വില കിട്ടുകയും അവർക്ക് വീണ്ടും വീണ്ടും കൃഷിയിൽ നല്ലവണ്ണം പ്രവർത്തിക്കാൻ വേണ്ടി പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ കാർഷിക വ്യവസായം നല്ല രീതിയിൽ മെച്ചപ്പെടും